ഞാൻ യാത്രപോകാൻ ആഗ്രഹിക്കുന്ന സ്ഥലം ഒന്ന് വയനാട് ഇടുക്കി പിന്നെ ഇന്ത്യക്ക് വെളിയിലാണെങ്കില് ജർമ്മനി ഈ രണ്ട് ഈ രണ്ട് മൂന്ന് സ്ഥലങ്ങളാണ് എനിക്ക് പോകാനാഗ്രഹം താൽപ്പര്യമുണ്ടാകാനുള്ള കാരണം കേരളത്തിലെ ഏറ്റവും മനോഹരമായ പ്രദേശമെന്ന് പറയുന്നത് വയനാടും ഇടുക്കിയുമാണ് പ്രകൃതി രമണീയമായ സ്ഥലമെന്ന് വേണമെങ്കില് പറയാം അതായത് ദൈവത്തെ ഗോഡ്സ് ഓൺ കൺട്രി എന്നാണല്ലോ കേരളത്തെ പൊതുവായിട്ട് പറഞ്ഞാലും മെയിനായിട്ടുള്ള രണ്ട് സ്ഥലങ്ങളും എന്റെയൊരറിവില് വയനാടും ഇടുക്കിയാരിക്കും കാലാവസ്ഥ അവിടത്തെ കാലാവസ്ഥയെന്ന് പറയുന്നത് നമുക്ക് നമ്മുടെ ജീവിതത്തിന് ഇണങ്ങിയ കാലാവസ്ഥയാണ് ഒരിക്കലും അവിടെയൊരു മോശം കാലാവസ്ഥ ഉണ്ടായിട്ടുള്ളതെനിക്കറിയില്ല വെയിലാണെങ്കില് വെയില് മഴയാണെങ്കില് മഴ തണുപ്പാണെങ്കില് തണുപ്പ് അങ്ങനെ ഒരുപാട് സ്ഥലങ്ങള് ഇടുക്കിയില്ത്തന്നെ ഒരുപാട് സ്ഥലങ്ങള് ഇല്ലിക്കൽക്കല്ല് ഇലവിഴാപൂഞ്ചിറ ഇടുക്കി ഡാം അതുപോലൊരുപാട് സ്ഥലങ്ങള് കാണാനുണ്ട് അതുപോലെ വയനാട് ചുരം ഏറ്റവും ഫേമസാണ് വയനാട് ചുരം ആ ചുരം കയറി പോവാന്ന് പറയുന്നതു തന്നൊരു ഒരു മൈൻഡ് ഫ്രെഷ്നുള്ള സംഭവം തന്നെ പ്രകൃതിയിലൊരു ഒരു കനിഞ്ഞു നൽകിയ കേരളത്തിന് കനിഞ്ഞു നല്കിയിട്ടുള്ള രണ്ട് സ്ഥലമാണത് ഏത് വയനാട് ഇടുക്കി എന്നും പറയുന്നത് ഈ വായനാടിലും ഇടുക്കിയിലും എനിക്കേറ്റവും ഇഷ്ടപ്പെട്ട സ്ഥലമെന്ന് പറയുന്നത് ഇടുക്കി കാരണം ഇല്ലിക്കക്കല്ല് ഇടുക്കിയിലല്ലെങ്കിൽപ്പോലും ഇടുക്കിയിലോട്ട് ബോഡറായിട്ടാണ് ഇല്ലി ഇല്ലിക്കക്കല്ലല്ല നമ്മുടെയീ ഇലവിഴാപ്പൂഞ്ചിറ അതിന്റെ ബോര്ഡറായിട്ട് വരും അവിടെ ചെന്ന് നിന്ന് കഴിഞ്ഞാല് തന്നെ നമ്മുടെ മൈൻറ്റൊക്കെ ഓക്കെയാവും നമ്മളെത്ര സ്ട്രെസ്സിലിരുന്നാല്പ്പോലും അവിടെ ചെല്ലുമ്പോള് തന്നെ നമ്മുടെ മൈൻഡോക്കെയാവും നമ്മുടെ വീട്ടിലെ സാഹചര്യങ്ങള് വെച്ചിട്ടായാലും ഓഫീസിലെ സാഹചര്യം വെച്ചിട്ടായാലും ഒരുപാട് ഇപ്പോഴത്തെക്കാലത്തൊരുപാട് സ്ട്രെസ്സനുഭവിക്കുന്നുണ്ട് അത് അതെല്ലാം മൈൻഡിൽനിന്നും മാറ്റാന് പറ്റിയ ഏറ്റവും നല്ല പ്ലേയ്സാണ് ഇടുക്കി വയനാടെന്ന് പറയുന്നത് അതുപോലെ രണ്ടാമത് ഞാനാഗ്രഹിക്കുന്നത് ജെർമ്മെനിയാണ് ജെർമ്മെനി എന്നു പറയുമ്പോള് അവിടുത്തെ കൾച്ചര് അവിടുത്തെ വിദ്യാഭ്യാസം അവിടുത്തെ അവിടുത്തെ ഓരോ അവിടുത്തെ ഭാഷാരീതീ അതെന്നെ വ്യത്യസ്തമാണ് അവിടുത്തെ എന്താണു പറയുക പ്രകൃതിയും ഏകദേശം നമ്മളുടെ ഇന്ത്യക്ക് ഇന്ത്യക്ക് സമാനമാണെന്ന് പറയാന് പറ്റത്തില്ല എന്നാലും നമ്മളാഗ്രഹിക്കുന്ന നമ്മൾക്ക് ഇഷ്ടപ്പെടുന്ന രീതിയിലുള്ള ഒരുപാട് ഒരുപാട് ഒരുപാടൊരുപാട് കാഴ്ചകള് നമുക്ക് ജെർമ്മെനിയില് കാണാന് പറ്റും അവരുടെ ആൾക്കാരായാലും തന്നെ ആ രാജ്യങ്ങളാൾക്കാരായാത്തന്നെ അവര് നല്ല സഹകരണമാണ് ഒരിക്കലും അവര് വിവേചനം കാണിക്കത്തില്ല വിവിധ രാജ്യങ്ങളിലേക്ക് വരുന്നവരെ അവര് എപ്പഴും വെൽക്കം ചെയ്തുകൊണ്ടിരിക്കും അവരൊരിക്കലും മുഖംതിരിച്ച് കാണിക്കത്തില്ല നമ്മുടെ ഇന്ത്യക്കാരെ പോലെ തന്നെയാണ് ജെർമ്മൻ കാരും എല്ലാ രാജ്യക്കാരും ഒരുപോലെ തന്നെയാണെല്ലാ നാട്ടുകാരും ഒരുപോലെ തന്നെയാണ് എങ്കിലും കൂടുതലെനിക്കിഷ്ടം ജെർമ്മെനിയാണ് ഞാനൊരുദിവസ് ഞാൻ ഞാൻ കേരളത്തില് യാത്ര പോയിരിക്കുന്നൊരു സ്ഥലങ്ങളാണ് ഇടുക്കിയും വയനാടമെന്ന് പറഞ്ഞത് ഇടുക്കി ഞാൻ ഒരുപാട് വട്ടം പോയിട്ടുണ്ട് വീണ്ടും പോവാനാഗ്രഹിക്കുന്ന സ്ഥലവും അത് ഇടുക്കി തന്നെയായിരിക്കും കാരണം ആ റോഡുകള് അതിലേക്കൂടെ പോകുന്ന വനത്തിനുള്ളിലൂടെയുള്ള റോഡുകളുണ്ട് ആ റോഡുകളിലൂടെ പോവുമ്പംതന്നെ രണ്ട് സൈഡിലുംനിന്നുള്ള മൈൻഡ് ഫ്രെഷായിട്ടുള്ള അരുവികളും വാട്ടർ ഫോൾസ് അതുപോലെ വെള്ളച്ചാട്ടങ്ങള് അതുപോലൊരുപാട് നമുക്ക് നമുക്കിഷ്ടപ്പെടുന്ന ഒരുപാട് വ്യൂസുണ്ട് ഒരുപാട് വ്യൂസുണ്ടവിടെ എനിക്ക് എന്താ എന്താ പറയുക ആ നമ്മള് നമ്മള് ഫാമിലി എൻ്റെ സുഹൃത്തുക്കൾ ഞാൻ കൂടുതലും പോയിട്ടുള്ളത് എൻ്റെ സുഹൃത്തുക്കളായിട്ടാണ് അവരൂടെ പോകുമ്പോള് നമുക്ക് ആ അടിച്ച് പൊളിച്ചവടെ ചെന്ന് നില്ക്കാന് പറ്റും കുറേ സ്ട്രെസ് നമ്മളനുഭവിക്കത്തില്ല നമ്മുടെ മൈൻഡ് ഫുള്ള് ഓക്കെയായിരിക്കും അവര് പിന്നവിടത്തെ ഫുഡ്ഡ് ഇടുക്കിയിലെ ഫുഡ്ഡ് കപ്പ കപ്പ പോട്ടി എല്ല് അങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ വെറൈറ്റിയാണ് വ്യത്യസ്തമാണ് അതക്കെ ടേസ്റ്റ് വളരെ ടേസ്റ്റുമാണ് ഒരിക്കലും ഒരു വിഷം പദാർത്ഥങ്ങള് ചേർക്കുകേല അതുപോലെ തന്നെ നമ്മടെ തേയില കാപ്പി പിന്നെ ചോളം ക്യാരറ്റ് ഇതൊക്കെ ഇടുക്കിയില് നല്ല നാച്ചുറലായിട്ടുതന്നെ കിട്ടും കെമിക്കലുണ്ട് എന്നാലും ചിലയിടത്ത് ചെല്ലുമ്പോഴത്തേക്ക് നാച്ചുറൽ സാധനങ്ങളായിരിക്കും കിട്ടുന്നത് പ്രകൃതിയുടെ ഒരു കറക്റ്റ് അനുഗ്രഹം കൊടുത്തിരിന്ന സ്ഥലം ഇടുക്കി തന്നെയാണ് അവിടത്തെ ആൾക്കാരും അതുപോലെ തന്നെ അവിടെ വരുന്നവരെ സന്തോഷത്തോടെ സീകരിക്കാൻ വരുന്ന ആൾക്കാര് അവർക്ക് ചോക്ലേറ്റ് വൈറ്റ് ചോക്ലേറ്റ് ഡാർക്ക് ചോക്ലേറ്റൊക്കെ ഒരുപാടുണ്ട് അതും അതും അവിടത്തെ പ്രത്യേകതയാണ് അതുപോലെതന്നെ സ്ട്രോബെറി പിന്നെ ആ ഇടുക്കിയില് ചുരം ഇടുക്കിയിലിങ്ങനെ രണ്ട് തേയില തോട്ടത്തിൻ്റെ നടുക്കൂടെ റോഡുകളുണ്ട് ഈ റോഡുകള് ഈ ആ തേയില തോട്ടത്തിൻ്റടുത്തൂടെക്കേറിക്കേറി ചെല്ലുന്ന നമ്മള് തമിഴ്നാട്ടിലായിരിക്കും അവസാനിക്കുക അതൊരു അതൊരു സന്തോഷമാണ് മേളിച്ചെന്നിട്ട് വീണ്ടും തിരിച്ചിറങ്ങി വരും അങ്ങനെക്കെയുള്ള സ്ഥലങ്ങളാണിടുക്കിയിലുള്ളത് വീണ്ടും ഇനിയവസരം കിട്ടിയാല് ഒന്നുങ്കൂടെ പോവാൻ ഞാനാഗ്രഹിക്കുന്നത് ഇടുക്കിയായിരിക്കും ഏറ്റവും ഏറ്റവും അടിപൊളി എന്നു പറഞ്ഞാല് നമുക്ക് ഒരിക്കലും മറക്കാന് പറ്റാത്ത കാര്യം വ്യൂസും കാര്യങ്ങളൊക്കെയായിരിക്കും അവിടെ നമ്മള് നമ്മള് പ്രതീക്ഷിക്കാത്തതിലും അധികം പ്രതീക്ഷിക്കാത്തതിലും അധികം കാര്യങ്ങളൊക്കെയായിരിക്കും നമുക്കീ അവിടുന്നു പോയാല് കിട്ടുക ശരിക്കും നമ്മള് ഫാമിലിയായിട്ട് പോകേണ്ട സ്ഥലമാണ് അപ്പോള് ഫ്രെണ്ട്സും ഫാമിലിയും ആരായാലും നമ്മുടെ കൂടെ കൂടെ ഉണ്ടായാലും നമ്മള് എന്ത് സ്ട്രെസ്സായാലും നമ്മളവിടുന്ന് മാറിനില്ക്കും വീണ്ടും പോവാന് നമുക്ക് ആഗ്രഹം തോന്നുന്ന സ്ഥലവും ഇടുക്കിയും വയനാട് പോലുള്ള സ്ഥലങ്ങളാണ് ഒരിക്കലും നമുക്ക് ഇന്ത്യ വിട്ടിട്ട് വേറൊരു രാജ്യം പറയാന് പറ്റത്തില്ല എങ്കിലും എനിക്ക് ജെർമ്മെനിയും ഇതോടൊപ്പം തന്നെ ഇഷ്ടമാണ് പോകാനാഗ്രഹിക്കുന്നൊരു സ്ഥലം കൂടിയാണ് ജെർമ്മനിയെന്ന് ഞാന് പറയും പിന്നേ പിന്നെയീ വയനാടെന്ന് പറയുമ്പോള് അവിടുത്തെ മൃഗങ്ങള് നമ്മളിപ്പോള് ഈ റോഡില് പോകുമ്പോള്ത്തന്നെ രണ്ട് സൈഡിലൂടെ മൃഗങ്ങളൊക്കെ പോകുന്നതു കാണാന് പറ്റും ഈ ആന മാന് മയില് അങ്ങനെയൊക്കെ ആ രണ്ട് സൈഡിലൂടെയും പോകുന്നത് നമുക്ക് കാണാന് പറ്റും അതും അത് നമ്മളൊരിക്കലും പ്രതീക്ഷിക്കാത്ത കാഴ്ചകളായിരിക്കും രണ്ട് സൈഡിലൂടിങ്ങനെ പോകുന്നതു കാണുമ്പോള് ഫോട്ടോസക്കെ എടുക്കാനും അതിൻ്റെ മുമ്പിൽച്ചെന്ന് നിന്ന് എന്തേലും ചെയ്തുകഴിഞ്ഞാല് അതവിടെ ഉറപ്പായിട്ടും പ്രതികരിക്കുമല്ലോ ഇതൊക്കെ പേടിച്ച് പേടിച്ചിട്ടായിരിക്കും നമ്മളത് വഴിയൊക്കെ പോകുന്നത് പിന്നെയീ കാട്ടിനകത്തൊക്കെ ചെല്ലുമ്പോഴത്തേക്ക് അതായത് പോകുന്ന വഴിക്കൊക്കെയീ വെള്ളച്ചാട്ടം കാണുമ്പോഴത്തേക്ക് നമ്മളുറപ്പായിട്ടും വണ്ടി നിർത്തുകയും ചാടുകയൊക്കെച്ചെയ്യും അങ്ങനെയുള്ള സ്ഥലങ്ങളാണ് ഇടുക്കിയും വയനാടും എന്ന് പറയുന്നത് ഒരിക്കലും നമ്മള് പോവാതിരിക്കരുത് ആ സ്ഥലങ്ങളൊക്കെ പോവാതിരിക്കരുതെന്നാണ് എൻറ്റൊരഭിപ്രായം പോകണം പൊയ്ക്കഴിയുമ്പോഴത്തേക്ക് അവിടത്തെ കാര്യങ്ങളൊക്കെ നമുക്ക് കറക്റ്റായിട്ട് മനസിലാക്കാന് പറ്റും ഒരിക്കലുമത് നമ്മള് പറഞ്ഞ് മനസ്സിലാക്കിയിട്ട് കാര്യമില്ല നമ്മളെപ്പോഴായാലും അവടെപ്പോവുക എനിക്ക് ഞാനിനിയൊരവസരം കിട്ടുവാണെങ്കില് ഇടുക്കി വയനാട് ജെർമ്മനി ഈ മൂന്ന് സ്ഥലങ്ങളില് വീണ്ടും പിന്നെ വീണ്ടും പോവാന്ന് പറയുന്നത് ഇടുക്കി വയനാട് ഞാൻ വീണ്ടും പോയിരിക്കും ജെർമ്മനിയില് ഞാൻ ഉറപ്പായിട്ടും എൻ്റെ ജീവിതത്തില് ഉറപ്പായിട്ടും പോകാനാഗ്രഹിക്കുന്നൊരു സ്ഥലംകൂടെയാണ് ജെർമ്മനി